മറ്റു കലയും കലാകാരന്മാരെയും കൂടുതൽ ഏറ്റവും കൂടുതൽ അറിയണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു കലേനെ അല്ലെങ്കിൽ ഒരു ആ കലാകാരനെ നേരിട്ട് കണ്ട് ആളുടെ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ആണ് ഏറ്റവും വേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ മുത്തശ്ശൻ എന്നെ കൊണ്ടുപോവുമായിരുന്നു കഥകളി കാണാൻ എൻ്റെ മുത്തശ്ശന് കഥകളി വളരെ ഒരു ഹരമായിട്ടുള്ള ഒരു കലയായിരുന്നു ഈ കഥകളി കണ്ടിട്ടാണ് എനിക്ക് പലകാര്യങ്ങളും മനസ്സിലായത് പുരാണങ്ങൾ നമുക്ക് എങ്ങനെ വായിക്കാണ്ട് എത്രയും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അതിൻ്റെ ഒരു രൂപമായിരുന്നു കഥകളി ഈ കഥകളിയിൽ അവർ കാണിക്കുന്ന പലപല മുദ്രകളും കാര്യങ്ങളും ഈ കലാകാരന്മാർ അങ്ങനെ അതിനെ പഠിച്ചെടുക്കുന്നു അതിനെ ഇങ്ങനെ അതിനെ റെപ്രസെൻസ് ചെയ്യുന്നു അതിനെ ആണ് കഥ ആ ഒരു കാര്യമിങ്ങനെ കഥകളിയിൽനിന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു ഉള്ളത് അത് നമുക്ക് പോയി കണ്ടുതന്നെ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് കഥകളിനെ പറ്റി ഒരാൾ പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി മനസ്സിലാവില്ല അതുകൊണ്ടുതന്നെ പണ്ട് ചെറുപ്പത്ത് ഞാൻ രാവിലെ നാലുമണിക്കും അഞ്ച് മണിക്കും അതേപോലെ രാത്രി എട്ടുമണിക്കും ഒമ്പതുമണിക്കൊക്കെത്തന്നെ മുത്തശ്ശൻ കൊണ്ടുപോകുമായിരുന്നു കഥകളി കാണാനും എന്തുകൊണ്ടാണ് അവർ കഥകളിയിൽനിന്ന് ഉദ്ദേശ്ശിക്കുന്നത് അവർ പലപല രൂപങ്ങൾ വികാരങ്ങൾ ഇതെല്ലാം സിനിമയേക്കാളും മുന്നേതന്നെ അവർ രൂപങ്ങളും വികാരങ്ങളും കഥകളിയിൽ എങ്ങനെ അവർ എക്സ്പ്രെസ്സ് ചെയ്യുന്നു അങ്ങനെത്തെ കാര്യങ്ങളൊക്ക ഒരു കലതന്നെ കണ്ട് കണ്ടാൽത്തന്നെ അതിനെപ്പറ്റി മനസ്സിലാകുള്ളൂ അതേപോലെ ഈ അടുത്ത് ഞാൻ ഫോട് കൊച്ചി പോവുകയുണ്ടായി മട്ടാഞ്ചേരി പാലസ് അങ്ങനെത്തെ സ്ഥലങ്ങൾ പോയി അവിടെയൊക്കെ പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ കലകളും കാര്യങ്ങളും കാണാൻ പറ്റിയിരുന്നു അതേപോലെ മട്ടാഞ്ചേരിയിലെ തന്നെ ജൂ ടൗൺ പണ്ടത്തെ ജൂതന്മാർ താമസിച്ചിരുന്ന കൊച്ചിയിലെ ഒരു സ്ഥലമായിരുന്നു ജൂ ജൂ ടൗൺ അവിടെ അവരുടെയൊക്കെ കൾച്ചറും കാര്യങ്ങളും കലകളും അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ആൻറ്റിക് പീസുകളും ഈ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും നമുക്ക് കാണുമ്പോൾ അത്രമാത്രം ആകർഷണം ഉണ്ടായിരുന്നു അവർ എങ്ങനെ ആയിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് പലതും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അവർ ഇവർ ഇത് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കാലത്ത് ഇവർ ഇതെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ്കൾ അതേപോലെ അവരുടെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെത്തെ എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ഥലത്തുണ്ട് അതേപോലെ അവർ യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ടൂൾസ്കൾ ഇങ്ങനെത്തെ എല്ലാ കാര്യങ്ങളും അതേപോലത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് അവിടെച്ചെന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടുതന്നെ നമുക്കൊരു കലേനെപറ്റിയിട്ട് ഒരുകാലാകാരനെ പറ്റിയിട്ടോ മനസ്സിലാവണമെങ്കിൽ അവരുടെ മുന്നിൽനിന്ന് കിട്ടുന്ന നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് കിട്ടിയാലേ നമുക്ക് ആ ഒരു കലയേനെപറ്റി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താണ് അവ സന്ദർശ്ശിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ അനുഭവം ആ ഒരു അനുഭവം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഏറ്റവും നല്ല ഒരു അനുഭവമാണ് കാരണം ഒരാൾ പറഞ്ഞ് മൻസ്സിലാക്കുന്നതിനെക്കാളും നന്നായിട്ട് ആ ഒരു കലേനെ പോയി നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ എന്താ നമ്മുടെയൊരു അറിവുണ്ട് ആ ഒരു അറിവ് നമുക്കൊരു കല കണ്ടാലോ ആ കല മനസ്സിലാക്കണമെങ്കിൽത്തന്നെ അതിനെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കണം അല്ലാണ്ട് വേറെ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആ ഒരു കലേനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല അതേപോലെ ഇന്ത്യയിലെ പലപല കലകൾ മോഹിനിയാട്ടം ഭാരതനാട്യം അതേപോലത്തെ ഓരോ ഓട്ടംതുള്ളൽ പണ്ട് ഇതേപോലെ ഞാൻ ഒരു പ്രാവശ്യം ഒരു അമ്പലത്തിൽ പോവുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ഇതേപോലെ ഓട്ടംതുള്ളലും കാര്യങ്ങളും എന്താണെന്ന് അന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെത്തെ ഓരോ കാര്യങ്ങൾ ആ കലയിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ സിനിമ തന്നെയൊരു കലയാണ് അതിന് ആ ആ ഒരു കലയിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് പോയി തിയറ്ററിൽ നിന്നുതന്നെ കാണണം അല്ലാണ്ട് ഒരാൾ പറഞ്ഞ കഥ കേട്ട് മനസ്സിലാക്കുകയല്ല വേണ്ടത് ആ ഒരു കല കാണണമെങ്കിൽ ആ ഒരു കല നേരിട്ട് കണ്ട് വിസ്മയപ്പെടണം എന്നാലേ നമുക്കൊരു കലയേനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ